ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഞ്ചാരകേന്ദ്രമാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ആ ക്ഷേത്രമെന്നു പറയുമ്പോൾ തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കവും ആചാരങ്ങളും അനുഷ്ടാനങ്ങളും നിറഞ്ഞ ശ്രീ കൃഷ്ണൻ വാഴുന്ന ഒരേയൊരു ക്ഷേത്രം കേരളത്തിലെ പാർത്ഥ സാരഥി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെന്നു പറയുമ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ആറന്മുള വള്ള സദ്യ വഴിപാടാണ് വള്ള സദ്യയെന്നു പറയുമ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം ഓണക്കാലത്തു മാത്രം ഉണ്ടാകുന്ന മഹത്തായ ഒരു മഹോത്സവം അൻപത്തി രണ്ട് കരകളും അതുമായി ചുറ്റപ്പെട്ടിരിക്കുന്ന പല പല ക്ഷേത്രങ്ങളുടെയും ആചാരമാണ് ശ്രീ പാർത്ഥ സാരഥി ക്ഷേത്രത്തിലെ വള്ള സദ്യ വഴിപാടെന്നു പറയുന്നത് ആ സദ്യക്കായി ഒരുക്കങ്ങൾ ഒരു നാടിൻറ്റെയും ഒരു ദേശത്തിൻ്റെയും ഐശ്വര്യത്തിനെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പാർത്ഥ സാരഥി തരുന്ന അനുഗ്രഹമാണ് വള്ള സദ്യ വഴിപാടെന്നു പറയുമ്പോഴേറ്റവും വലിയ പ്രത്യേകത എന്ന ഇതിൽ അറുപത്തി രണ്ട് വിഭവങ്ങളും അതു പോലെ തന്നെ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ കൊണ്ടു താളഘോഷത്തോടെ താളമേളങ്ങളോടെയാണ് ആ വള്ളസദ്യ വഴിപാടിൽ ഭക്തർ വന്നു പങ്കെടുക്കുന്നത്

മൂന്നു മാസങ്ങൾ കാലം നീണ്ട് നിൽക്കുന്ന ഒരു മഹോത്സവമാണെങ്കിലും ഓരോ നാട്ടുകാരുടെയും ഓരോ പ്രദേശത്തിൻ്റെയും നെഞ്ചിൽ എന്നും ആ താളം നില നിൽക്കുന്നതാണ് ഇത്രയും മഹത്തായ വഞ്ചി പാട്ടും അതിലെ ആചാരവും അതിലടങ്ങിയിരിക്കുന്ന ഈ വഴിപാട് സദ്യയുമാണ് എല്ലാവരെയും മറ്റൊന്നിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ മുഖ മുദ്ര അതിലെ വസ്ത്ര ഘടനങ്ങളെന്നു പറയുന്നതും സവിശേഷത ഉള്ളതാണ് പള്ളിയോടത്തിൽ വരുന്ന ഭക്തർ അല്ലെങ്കിൽ തുഴക്കാർ അവർ വെള്ള മുണ്ടും അതുപോലെ വെള്ള തോർത്തും അരയും തലയും മുറുക്കി കെട്ടിയാണ് വരുന്നത് അത്തരത്തിലുള്ള ഒരു ആചാരങ്ങളുടെ ഭാഗമായി ഈ പ്രദേശത്തിൻ്റെ ഒരേയൊരു യശസ്സുയർത്തുന്ന മഹാക്ഷേത്രം ഈ നാട്ടിൽ നിന്നു മാത്രമല്ല മറ്റു നാടുകളിൽ നിന്നും പല ദേശത്തിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും തന്നെ അന്നേ ദിവസം ആൾക്കാരുടെ

ഒരു തിരക്കു തന്നെയാണ് അന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്നത് രുചിയേറിയ ഭക്ഷണം ആകർഷണമായ ഈ വസ്ത്ര രീതിയുമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ആറന്മുള ക്ഷേത്രത്തെ മാറ്റി നിർത്തുന്നതും ആ യശസ്സ് ഉയർത്തി പിടിക്കുന്നതും